ഹലോ ഇത് ടോപ് ഫോം റെസ്റ്റോറൻറ്റ് അല്ലേ കോഴിക്കോടുള്ളത് സാറേ ഞാൻ ഈ നെയ്ച്ചോറും കോഴിയിറച്ചിക്കറീനേം കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു വിളിച്ചതേ ഓക്കേ അത് അതെങ്ങനെയായിരുന്നു നിങ്ങളുടെ അതിനെന്തെങ്കിലും സ്പെഷ്യൽ അതിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഇപ്പോൾ നെയ്ച്ചോറിലും ഗീറൈസിലും ചിക്കൻകറിയിലൊക്കെ അത് ഈ നെയ്ച്ചോറിൻ്റെ കൂടെ എന്തൊക്കെ കറിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ബീഫും ചി അതെ അതെന്തൊക്കെയാണ് സാറേ ഓക്കേ ബീഫും നെയ്ച്ചോറും ആയിട്ട് ഓക്കേ അത് നല്ലൊരു കോംബോ ആണോ ഓക്കേ ഓക്കേ അപ്പോൾ സ്പൈസി ആണത്

അത് ഫിഷ് ഏത് ഫിഷ് ആണത് യൂസ് ചെയ്യുന്നത് ഓക്കേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണോ ഫിഷ് അപ്പം ഒരു ഫിഷ് ആണ് പ്രിഫർ ചെയ്യുന്നത് അതിൻ്റെ പീസ് കഷ്ണങ്ങൾ ഒന്നുമില്ല ഫുൾ ഓക്കേ ഓക്കേ

ഓക്കേ മട്ടനിൽ മട്ടൻ എന്തൊക്കെയാണ് മട്ടനിൽ പിന്നെ വെറൈറ്റി ഇല്ലേ

ഈ ജിൻജറിൽ ഭയങ്കരമായിട്ട് സ്പൈസിയും പിന്നെ അതിൻ്റെ ഒരു കുത്തലും കൂടുതലായിരിക്കില്ലേ ഓക്കേ ഈ ഡക്ക്സ് ഐറ്റം വരുന്നില്ലേ സാറേ

ഓക്കേ അതെ അതാണ് ഞാനുദ്ദേശിച്ചേക്കുന്നത് അത് എന്താണ് അതെങ്ങനെയാണ് ഭയങ്കര സ്പൈസി ആയിട്ടുള്ളതാണോ അതോ നമുക്ക് പിന്നെ ചിൽഡ്രൻസ് ഒക്കെ ഞങ്ങളുടെ കൂടെ കുട്ടികളൊക്കെയുണ്ട് അപ്പം അവർക്കും കൂടെ കഴിക്കാൻ പാകത്തിന് ഓവർ സ്പൈസി ആയിരിക്കരുത് ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ അപ്പം ഈ മക്കൾക്ക് കഴിക്കാൻ പറ്റിയ ഈ പിന്നെ ഇറച്ചി ഐറ്റംസ് ഏതൊക്കെയാണ്

അപ്പം ഞങ്ങൾ ആ റാബിറ്റ് വേണ്ട സാറേ നമുക്ക് ഈ ചിക്കൻ ഇത്രയും ഇതുമതി ഇപ്പം നമുക്ക് ഫിഷ് നമുക്ക് ബീഫും പിന്നെ ചിക്കനും ഡക്ക് ഐറ്റംസും മതി അപ്പോൾ ഞങ്ങൾ ഈ അടുത്തു അങ്ങോട്ടേക്ക് ഇത് അന്വേഷിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ നമുക്ക് പറ്റിയ അപ്പോൾ ഞങ്ങൾ ഫാമിലി ഒരു ഗെറ്റ് ടുഗെതർ പോലെ വെക്കാനാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാം അവിടെ വന്നിട്ട് ഓർഡർ ചെയ്യാമല്ലോ ഇപ്പോൾ ഇത്രയും ഇതുണ്ടല്ലോ ഓക്കേ ഓക്കേ താങ്ക് യൂ സർ